ഇൻഡ്യാ രാജ്യത്ത് ഇപ്പോൾ ആശുപത്രികളെ കുറിച്ച് പറയുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ആശുപത്രികൾ എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആശുപത്രി പല ഓരോ ജില്ലകളിലും വളരെ മികച്ച രീതിയിലുള്ള ആശുപത്രികൾ ലഭ്യമാണ് അതുപോലെ തന്നെ ഫിസിഷ്യൻസ് ആണെങ്കിലും ഓ എല്ലാ സർവ്വീസുകളും ലഭ്യമാണ് പക്ഷെ അതിൻ്റെ ചിലവ് അതിഭയങ്കരമായിട്ട് വർധിച്ചിരിക്കുകയാണ് ഇപ്പം വരും ഈ വർഷങ്ങളിലെല്ലാം അതായത് ഒരു കഴിഞ്ഞ അഞ്ചിൽ പത്ത് വർഷത്തോളം ആയിട്ട് മെഡിക്കൽ രംഗത്ത് ചിലവ് വളരെ വളരെ അധികമാണ് ഇപ്പോൾ കേരളത്തെ നമ്മൾക്ക് കണ്ടു കേരളത്തെ നമ്മൾ കണ്ടു ഇൻഷുറൻസ് രംഗം അതായത് മെഡിക്കൽ ഇൻഷുറൻസ് രംഗം ഈ ആം മെഡിക്കൽ ഫീൽഡിനെ കവർന്നെടുത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് ഇപ്പം സാധാരണക്കാരന് സർക്കാർ ആശുപത്രികൾ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് എവിടെ ചെന്നാലും ഇപ്പോൾ എന്ത് സാഹചര്യങ്ങളിലാണെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വ്യക്തിക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെ ചികിത്സ ലഭ്യമാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത്തരം രീതിയിലേക്ക് ചിലവ് മനുഷ്യന് താങ്ങാവുന്നതിൽ അധികമാണ് ചെറിയ ഒരു ഒരൂ എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ ചിലവ് കൂടിയ കുറേ ഉദാഹരണത്തിന് ഒരൂ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഒരു ഡെലിവറിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ മറ്റ് ഏത് രാജ്യത്താണെങ്കിലും കേരളത്തിന് വെളിയിലാണെങ്കിൽ പോലും ഡെലിവറിയൊക്കെ വളരെ തുച്ഛമായ രീതിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ രീതി ഇരുപതിനായിരം രൂപയാണ് ഏറ്റവും ബേസിക് പാക്കേജെന്നും പറഞ്ഞ് എന്ത് കാര്യത്തിനും പാക്കേജ് അല്ലെ ചെറിയ സ്കീം അല്ല എന്ത് കാര്യം പാക്കേജിലാണ് തുടങ്ങുന്നത് അതായത് ചികിത്സ എന്ന് പറയുന്ന പാക്കേജ് പാക്കേജ് എന്ന് പറഞ്ഞ് അത്തരം അത്തരം ആ രീതിയിലാണ് ഇവരുടെ ഒരു അഡ്വാടൈസ്മെൻ്റ് പോലും അത് ചിലവ് മനുഷ്യന് താങ്ങാവുന്നതിൽ അധികമാണ് എന്ത് കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഒരുവർഷം അടച്ചു രണ്ട് വർഷം അടച്ചു ഹെൽത്ത് ഇൻഷുറൻസ് അടച്ച് കഴിഞ്ഞിട്ട് മൂന്നാം വർഷം നമ്മൾ ട്രീറ്റ്മെൻ്റിന് ചെല്ലുന്നതെന്ന് വച്ചോളൂ അപ്പോഴത്തേക്കും ഒരു സർജറി ചെയ്യുവാണെങ്കിൽ അവർ പറ അവർ പറയും അവർ ആദ്യം നമ്മൾക്ക് ക്ലെയിം ആയി എന്നിട്ട് പിന്നീട് ക്ലെയിം ക്യാൻസെല് ചെയ്യുന്നു അതിൻ്റെ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നു ഇത് നിങ്ങൾക്ക് നേരത്തേയുള്ള അസുഖമാണ് അങ്ങനെയൊക്ക അവർ അവകാശപ്പെടുകയാണ് പിന്നെ നമ്മൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകേണ്ടി വരുന്നു ഇത് ഇല്ല എന്നുള്ളത് അതായത് എവിടെയെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിലൊക്കെ ഇത് എൻട്രി ഇല്ല എന്നുള്ളത് തെളിയിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു അഥവാ ഈ നമുക്ക് ഒരു അസുഖം നമ്മൾ ഇപ്പം തുടങ്ങിയിട്ട് നമ്മൾ അതിന് ശേഷം ആണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പേമൻ്റ് തരാതെ വരുന്നു ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് ഇപ്പം സാഹചര്യങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കോവിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡ് മനുഷ്യനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ട ഒരു സാഹചര്യമായിരുന്നു കോവിഡിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും പിന്നേ കോവിഡ് വന്നു അതിനു ശേഷം വാക്സിൻ എടുത്തു അപ്പോൾ അതിലൊക്കെ നമുക്ക് മനസ്സൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ആണ് കുറേ വർഷങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം ആണ് ആൾക്കാർക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത് പലർക്കും ഹേർട്ട് സംബന്ധമായ പല പ്രശ്നങ്ങളും ഈ കോവിഡിന് ശേഷം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇവിടെ ആണെങ്കിലും വിദേശങ്ങളിലെ ആണെങ്കിലും വളരെ ചെറുപ്പത്തിലുള്ള ചെറുപ്രായക്കാരായ ആൾക്കാർ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ് വളരെ ബുദ്ധിമുട്ടായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ട് കോവിഡിന് ശേഷം ഒരുപാട് മരണങ്ങൾ വർധിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരുടെ മരണങ്ങൾ വർധിച്ചിട്ടുണ്ട്